ഞാൻ ഇന്നലെ വിളിച്ച് ക്യാബ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഇന്നത്തേക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പത്തു മണിക്ക് ആണ് രാത്രി പത്തു മണിക്ക് ആണ് എനിക്ക് പിന്നെ ഇവിടെ എത്തേണ്ടത് എയർപോട്ടിൽ എത്തേണ്ടത് അപ്പോൾ കുറ്റിയാടിയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രമണിക്ക് വരും എന്ന് അറിയാനായിരുന്നു ലഗേജും കാര്യങ്ങളും ഉണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കൊരു ഒരു മണിക്കൂറും കൊണ്ടൊക്കെ എത്തേണ്ട ദുരം അല്ലേയുള്ളു അപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുമോ ഒന്നും അറിയില്ലലോ എന്താണ് അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ കുറച്ചു നേരത്തെ വരികയാണെങ്കിൽ പത്തു മണിക്ക് എനിക്ക് എയർപോർട്ടിൽ എത്തണം അത് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ മൂന്ന് മണിക്കൂർ മുമ്പ് അവിടെ എത്തണമല്ലോ അപ്പോൾ നിങ്ങൾ എപ്പോൾ വരും എങ്ങനെയാണെന്നൊക്കെ അറിയാനായിരുന്നു നിങ്ങൾ കുറച്ച് നേരത്തെ വരികയാണെങ്കില് നമുക്കൊരു എട്ടരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അര മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ എത്തിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എപ്പോഴാണ് വരികയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു നിങ്ങൾ കൃത്യ സമയത്ത് ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഒന്നര മണിക്കൂർ മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങാം ഒരു മണിക്കൂർ മതിയല്ലോ